ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കുറേ എന്താണ് പറയുക മുന്നോട്ട് വരാനുണ്ട് ഇപ്പോഴത്തെ ഈ ഇപ്പം ഉള്ള ഈ വിദ്യാഭ്യാസ രീതിയെ മൊത്തം നമുക്കൊന്ന് മാറ്റിയിട്ട് ഒന്ന് കൂടി പ്രവൃത്തി പ്രവർത്തനം അതായത് പ്രാക്ടിക്കൽ രീതിയിലേക്കും വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രീതിയൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് അതായതിപ്പ മറ്റ് രാജ്യങ്ങളെപ്പറ്റി വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും ഈ തിയറി ക്ലാസ്സിനെ പറ്റി തിയറി ക്ലാസ്സിനെകാട്ടിലും കൂടുതൽ ഉള്ളത് ഈ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ വർക്കും കാര്യങ്ങളും പ്രൊജക്റ്റും അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് അവിടെ എക്സാംസ് കുറവാണ് പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഫുൾ നമുക്ക് ഉള്ളത് എന്താണ് പറയുക കാണാപ്പാഠം പഠിച്ചിട്ട് ഒക്കെ ഉള്ളതൊക്കെ ബുക്കിൽ ഉള്ളത് എല്ലാം കാണാപ്പാഠം പഠിച്ച് അത് നേരെ ചെന്നിട്ട് പേപ്പറിലേക്ക് എഴുതിയിട്ട് മാർക്ക് വാങ്ങുന്നതാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്നു കാണാപ്പാഠം പഠിക്കുന്നു ബുക്കിലേക്ക് എഴുതുന്നു അത് പോവും പിന്നെ എക്സാം കഴിഞ്ഞാൽ അതിനെപ്പറ്റി തീരെ എന്താണ് പറയുക നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് അങ്ങനെ ഉള്ളൊരു ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിച്ച് പോകുന്നില്ല ഫുൾ നമ്മൾ എഴുതി പഠിക്കുന്നത് മാത്രമേ ചെയ്യുന്ന ചെയ്യുന്നില്ല ചെയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല അതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെ ഒക്കെ ആയിക്കോട്ടെ അവിടെ സ്കൂളുകൾ എന്ന് പറയുന്നത് അവിടെ എക്സാംസ് അല്ല എക്സാംസ് കുറവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് വർക്ക് അവർ എന്തിനാണ് ഇതിനെ പഠിക്കുന്നത് അവർ ഒരു സംഭവം പഠിച്ചാൽ അതെങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്കെങ്ങനെ കൊണ്ട് വരാം അതെങ്ങനെ നമുക്ക് അതെന്തിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള പഠന രീതിയാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഉള്ളത് പക്ഷേ ഇന്ത്യയിൽ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുൾ എന്താണ് പറയുക ഒരു നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവർ നമ്മളെ പഠിപ്പിക്കും നമ്മൾ അത് നോട്ടിലേക്ക് എഴുതും എക്സാമിൻ്റെ തലേദിവസം അത് മൊത്തം ഇരുന്ന് കാണാതെ പഠിക്കും പിറ്റേ ദിവസം എഴുന്നേറ്റ് നേരെ പോയിട്ട് പേപ്പറിൽ എഴുതും എക്സാം എഴുതും അപ്പം നമുക്ക് ചിലപ്പോൾ മാർക്ക് ഉണ്ടാവും പക്ഷേ അതിന് ശേഷം അത് അത് എന്തിനാണ് നമ്മൾ പഠിച്ചത് അത് പിന്നീട് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇന്നത് എന്താണ് നമ്മൾ എന്താണ് പഠിച്ചത് ആ പഠിച്ചത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താണ് നമ്മൾ ആ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ആണ് പഠിക്കുന്നതും അങ്ങനെയാണ് നമ്മൾ ആക്കി വെച്ചതും എക്സാമിന് മാർക്ക് കൂടുക എന്നുള്ള ആ ഒരു മാ അത് മാത്രമേ നമ്മളെ അങ്ങനെയാണ് നമ്മളെ ആക്കി വെച്ചത് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ് ചെറുപ്പം മുതലേ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് അതായത് പഠിച്ചിട്ട് മാർക്ക് വാങ്ങുക ഫുൾ ബുക്കിൽ ഉള്ളത് മൊത്തം അതുപോലെ പഠിക്കുക എക്സാം പേപ്പറിൽ കൊണ്ട് പോയിട്ടെഴുതുക ഇത് മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ആദ്യം മുതൽ എൽ കെ ജി മുതൽ നമ്മൾ എൽ കെ ജി അങ്കണവാടി മുതൽ ഇതുതന്നെ ആണ് പറയുന്നത് അത് വലുതാകുമ്പോളും ആ ഒരു ശീലത്തിൽ ആ ശീലം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അങ്ങനെ ഉള്ളൊരു വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരണം കാരണം അത് എന്തിനാണ് നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് സാധനം എന്തിനൊക്കെ ഉപയോഗിക്കാം എവിടേക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെപ്പറ്റിയുള്ള ഒരു ബോധം കുട്ടികൾക്ക് എന്തായാലും വേണം എന്നാലല്ലേ പഠിച്ചിട്ട് കാര്യം ഉള്ളൂ അപ്പോൾ അത് അതിനെയാണ് പഠനം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഡെയിലി ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം ഈ പഠിച്ച സാധനം എങ്ങനെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം എന്നത് കൊണ്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് അറിഞ്ഞാൽ മാത്രമേ അവിടെ വിദ്യാഭ്യാസം എന്നത് പൂർണ്ണമാവുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പേപ്പറിൽ ഉത്തരക്കടലാസിൽ കിട്ടുന്ന മാർക്ക് അതാണ് ഒരു വിദ്യാഭ്യാസം ഉത്തരക്കടലാസിൽ കിട്ടുന്ന മാർക്കിനനുസരിച്ചാണ് വിദ്യാഭ്യാസത്തിനെ നമ്മൾ കൊണ്ട് വരുന്നത് റേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ രീതിയിൽ നിന്നും നമുക്ക് എത്രയും പെട്ടെന്ന് മോചനം കിട്ടട്ടേ എന്ന് വിശ്വസിക്കുന്നു ഒന്ന് കൂടെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും ഒ അത് ഒന്നുകൂടെ ഡെവലപ്പ് ആക്കിയിട്ട് നല്ല രീതിയിൽ കൂടതൽ പ്രാക്റ്റിക്കൽ കൂടുതൽ ആപ്ലിക്കബിൾ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി കൊണ്ട് വരണം